ആ നീ വന്നോ

അതെയല്ലോ

അതെയോ ആ ആ ആ ഷെറിനല്ലേ ആ ആ ശരിയായോന്ന് ചോദിച്ചാൽ കുറച്ച് താമസമുണ്ട് കേട്ടോ ഷെറിൻ വേറൊന്നും വിചാരിക്കരുത് ഞാനിച്ചിരി കല്ല്യാണ തിരക്കിലായിപ്പോയി എത്രയും പെട്ടെന്നത് ചെയ്ത് തരാം ആ നല്ല ക്ലീനായിട്ട് വൃത്തിക്കും മെനക്കൊക്കെ ചെയ്യണ്ടേ അതുകൊണ്ടാണ് താമസമെടുക്കുന്നത് അതൊരു നിങ്ങളൊന്ന് ക്ഷമിക്കണം നിങ്ങൾ പോവുന്നതിന് മുൻപ് എന്തായാലും അത് തയ്യാറാക്കി തന്നേ വിടത്തുള്ളൂ അടുത്താഴ്ച്ചത്തോടുകൂടി അത് ശരിയാക്കാം കേട്ടോ നിങ്ങളുടെ വികാരം എനിക്ക് മനസ്സിലാകുന്നുണ്ട് നിങ്ങളെൻ്റെ ഒരു പ്രശ്നം കൂടി മനസ്സിലാക്കണം വളരെ അത്യാവശ്യമായ കുറച്ച് തിരക്കുകളിലായിപ്പോയി അതുകൊണ്ടാണ് എത്രയും പെട്ടെന്ന് ഇനി അടുത്ത ചാൻസ് നിങ്ങൾക്കാണ് ഒരാഴ്ച്ചത്തെ സമയം കൂടെ എനിക്ക് തന്നാലത് വളരെ മനോഹരമായി ചെയ്ത് നിങ്ങളുടെ കൈകളിലെത്തിക്കാം ഒരാഴ്ച്ചത്തെ സമയം കൂടി ഓക്കെ ഒരാഴ്ച്ചത്തെ കാര്യമല്ലേ ഒരാഴ്ച്ചത്തെ കാര്യമല്ലേ നിങ്ങൾ പോവുന്നതിനു മുൻപ് എന്തായാലും ഉറപ്പായിട്ടത് ചെയ്തു തന്നോളാം ഓക്കെ ആ ഇല്ല ഇല്ല ഒരു തടസ്സവും പറയത്തില്ല ആ ഓക്കെ ഓക്കെ ഒരു ഒരു ഒരു കുഴപ്പവും ഇല്ല ഓക്കെ നിങ്ങൾ പറഞ്ഞപോലെ ഒരാഴ്ച്ചക്കുള്ളിൽ കൃത്യമായിട്ട് ചെയ്തുതരും ഓക്കെ ശരി ശരി